ഡിഗ്രി കാരൃങ്ങളൊക്കെ തന്നെയാണ് പുറത്തു നിന്ന് ഇവിടെ വന്നു പഠിക്കുന്നവരും ഉണ്ട് ഇവിടുത്തെ കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നവരും ഉണ്ട് ഇവിടെ ഇവിടെ ഉള്ളവർ നഴ്സിംഗ് ആണ് മെയിനായിട്ടും കൂടുതൽ ബി എസ് സി നഴ്സിംഗ് ആണ് എടുക്കുന്നത് അത് ഇവിടെ കേരളത്തിൽതന്നെ പഠിക്കാന് വേണ്ടി നയന്റി നയന് പേര്സെന്റ് നയന്റി ഫൈവ് എബൗ നയന്റി ഫൈവ് പേര്സെന്റേജ് മാര്ക്സ് വേണം അതുകൊണ്ടുതന്നെ അവർ പുറത്തുപോയി പഠിക്കലാണ് പതിവ് പുറത്തുനിന്ന് പറയുമ്പം മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ നല്ല കോളേജുകളിൽ അഡ്മിഷന് എടുത്ത് അവിടെ ഹോസ്റ്റലില് നിന്നു പഠിക്കുകയാണ് ഇവിറ്റെയെന്നു പറയുമ്പോൾ കേരളത്തിൽ നല്ല നഴ്സിംഗ് കോളേജൊക്കെ ഉണ്ട് പിന്നെ ജനറല് നഴ്സിംഗ് ആണെങ്കില്ലും ഒക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ പുറത്തുപോയി പഠിക്കലാണ് പതിവെന്ന് പറയുമ്പോൾ എനി ഇവിടുത്തെ ഡിഗ്രി കോളേജുകളിലാണെങ്കിലും നല്ല കോളേജുകൾ അവൈലബിള് ആണ് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ വച്ച് കേരളത്തിൽ വച്ച് നോക്കുമ്പം പുറത്തത്തെ ടീച്ചേഴ്സും നഴ്സിംഗിനൊക്കെ പുറത്തുപോയി പഠിക്കുന്നതാണ് നല്ലത് അവിടുത്തെ ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നന്നായി പഠിപ്പിക്കുന്നവരാണ് ഇവിടെ നിന്നു പറയുമ്പോൾ കുറച്ച് പുറകോട്ടാണ് ഡിഗ്രി കാര്യങ്ങളൊക്കെ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും നല്ലൊരു കോളേജ് അന്തരീക്ഷം ഒക്കെ തന്നെയാണ് പൊതുവേ നമ്മുടെ ഈ നാട്ടിൽ ഉള്ളതെന്നു പറയുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും എല്ലാം കൊണ്ടും നല്ലതാണ്